മത്സ്യബന്ധനത്തിനായി വിവിധ തരം ബോട്ടുകൾ ഉപയോഗിക്കാറുണ്ട് ബാസ് ബോട്ടുകൾ അലുമിനിയം ബോട്ടുകൾ സെൻറ്റർ കൺസോൾ ബോട്ടുകൾ ഡക്ക് ബോട്ടുകൾ ബേ ബോട്ടുകൾ ട്രോളർ ബോട്ടുകൾ സ്പോട്ട് ഫിഷിങ് ബോട്ടുകൾ ഇത്തരത്തിൽ എന്ന സംബന്ധിച്ച് മീൻ പിടിക്കുക എന്നത് ഒരു ജോലിയല്ല ഞാൻ ഒഴിവ് സമയങ്ങളിലാണ് മീൻ പിടിക്കാൻ പോകാറുള്ളത് മത്സ്യബന്ധനത്തിനായി ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് തരം ബോട്ടുകളാണ് ബാസ് ബോട്ടുകളും ബേ ബോട്ടുകളും എന്നെപോലെ ബാസ് ബോട്ടുകളും ബേ ബോട്ടുകളുമാണ് ചെറിയ ആവശ്യങ്ങൾക്കായി ആൾക്കാർ ഉപയോഗിക്കാറുള്ളത് ബാസ് ബോട്ടുകൾ ബേ ബോട്ടുകളും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട് ബാസ് ബോട്ടുകൾ ശുദ്ധജലത്തിൽ മീൻ പിടിക്കുന്നതിനായാണ് ഉപയോഗിക്കാറുള്ളത് അതായത് ശുദ്ധജല തടാകങ്ങളിലും മറ്റും ഈ ബോട്ടുകൾക്ക് വലിയ ഭാരം താങ്ങാനോ ബാസ് ബോട്ടുകളിലുപയോഗിക്കുന്നത് അൻപത് മുതൽ ഇരുന്നൂറ്റീയൻപത് വരെ ഹോഴ്സ് പവർ ഉണ്ടാക്കുന്ന എഞ്ചിനുകളാണ് വലിയ തടാകങ്ങളിലും പുഴകളിലും നദികളിലുമെല്ലാം മീൻപിടിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായത് ബാസ് ബോട്ടുകളാണ് ഇവ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും ബേ ബോട്ടുകൾ എന്ന് പറയുന്നത് അവയുടെ പേരുപോലെ തന്നെ കടലിലേക്ക് കടക്കുന്ന സ്ഥലങ്ങളിൽ അതായത് ഉൾക്കടലിൽ ഉപയോഗിക്കുന്ന ബോട്ടുകളാണ് ഇവയും ചെറുകിട ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിക്കാറുള്ളത് വലിയ മത്സ്യബന്ധന തൊഴിലാളികളൊന്നും ബേ ബോട്ടുകൾ ഉപയോഗിക്കാറില്ല എന്നെ പോലെ ചെറുകിട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ബേ ബോട്ടുകൾ ഉപയോഗിക്കുന്നത് ഈ ബോട്ടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഒരു വി ആകൃതിയിലായിരിക്കും എൻ്റെ ഉടമസ്ഥതതയിൽ രണ്ട് ബോട്ടുകളുണ്ട് ഒരു ബാസ് ബോട്ടും ഒരു ബേ ബോട്ടും